ഹലോ ജനസേവ ഓൺലൈൻ സർവീസ് സെൻററല്ലേ ഇത് പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി ചില നിർദ്ദേശങ്ങൾ ചോദിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഞാൻ ഏഴെട്ട് കൊല്ലമായി താമസിച്ചിരുന്നതും അതുപോലെ എൻ്റെ കുടുംബവും മറ്റും നിലനിന്നിരുന്നതുമൊക്കെ തിരുവനന്തപുരത്തായിരുന്നു അവിടെ നിന്ന് ജോലിക്ക് സൗകര്യത്തിനനുസരിച്ച് ഞങ്ങൾ ഒരു രണ്ട് കൊല്ലമായി മലപ്പുറത്തെത്തി താമസിച്ചിരുന്നു പക്ഷെ തിരുവനന്തപുരത്തേക്കാൾ മലപ്പുറത്ത് സ്ഥിരമായി നിൽക്കുന്ന കാരണത്താല് ഞങ്ങൾ തിരുവനന്ത പുരത്തുള്ള വീടിന് പുറമെ മലപ്പുറത്തൊരു വീട് വെയ്ക്കുകയും ഞങ്ങൾ ഞങ്ങൾ പിന്നീട് കുടുംബത്തിലും മറ്റും ചർച്ച ചെയ്തതിനുശേഷം അവിടെ സ്ഥിരമാക്കാൻ അതായത് മലപ്പുറത്ത് സ്ഥിരമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഔദ്യോഗിക പാൻ കാർഡ് പോലെയുള്ള മറ്റുള്ള ഞങ്ങളുടെ എല്ലാ ഔദ്യോഗിക രേഖകളിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലവിലുള്ള അഡ്രസ്സായി വരുന്നത് തിരുവനന്തപുരമാണ് അതായത് ഞങ്ങളുടെ മെയിലും മറ്റു കാര്യങ്ങളുമൊക്കെ ലഭിക്കുന്നത് തിരുവനന്തപുരത്തുള്ള പഴയ വീട്ടിലാണ് പക്ഷെ അതെല്ലാം ഞങ്ങൾക്ക് ഔദ്യോഗിക രേഖകളിൽ നിന്നെല്ലാം മാറ്റേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ അതിനുവേണ്ട ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരുമോ